ഞങ്ങൾ ആലപ്പുഴ പ്രദേശമായത് കൊണ്ട് തന്നെ ഞങ്ങക്ക് ഏറ്റവും കൂടുതലായിട്ട് വള്ളം ഗാനങ്ങളെന്ന് പറഞ്ഞാൽ വഞ്ചിപ്പാട്ട് അതാണ് ഞങ്ങളുടെ പിന്നെ പ്രത്യേകിച്ചും എൻ്റെ വൽ എൻ്റെ വല്യപ്പച്ചൻ മുതല് വഞ്ചിപ്പാട്ടിൻ്റെ പാടുന്ന ആളായിരുന്നത് കൊണ്ട് ഞാൻ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് വഞ്ചിപ്പാട്ടുകള് അതൊക്കെ ഇങ്ങനെ ഭയങ്കര പ്രസിദ്ധമായിട്ട് കിടക്കുന്ന എത്ര കേട്ടാലും നമുക്ക് മതിവരത്തില്ല പിന്നെ നാടോടി പാട്ടുകള് അതൊക്കെ കേട്ടിട്ടുണ്ട് ഇവിടെ മറ്റേ ഓരോ ഇതിൻ്റെ പാ ഓരോ മുരം മൂലം വള്ളംകളിയും നെഹ്റു ട്രോഫി ഒക്കെ വരുമ്പഴത്തേക്ക് പാട്ടുകളുടെ വള്ളങ്ങള് പോകുമ്പോൾ ഞങ്ങള് ഈ പാട്ടുകള് കേൾക്കാൻ വേണ്ടി തന്നെ അയൽവക്കത്തൊക്കെ പോയി നിൽക്കും കേൾക്കാൻ വേണ്ടി തന്നെ ഇവര് പാടുന്നത് കേൾക്കാം വഞ്ചിപ്പാട്ട് പാടുമ്പോൾ ഉള്ള ആ അതിൻ്റെ ആ താളവും എല്ലാം കേൾക്കുമ്പോൾ മനസ്സില് വല്ലാത്തൊരു സുഖമാണ് അനുഭവിക്കുന്നത് നമ്മള് പിന്നേ പിന്നെ പിന്നെ നമ്മുടെ ഈ നാടോടി പറഞ്ഞ എനിക്ക് മറ്റുള്ള പാട്ടുകളെ കുറിച്ചൊന്നും അത്ര അറിവില്ല എനിക്ക് എനിക്ക് കൂടുതൽ അറിയാവുന്നത് ഈ വഞ്ചിപ്പാട്ട് മാത്രമാണ് ഒക്കെ ഞാ കേട്ടിട്ടുള്ളത് നാടൻ പാട്ടുകളൊന്നും ഞാൻ അങ്ങനെ നാടൻ പാട്ടുകള് കേൾക്കാറുണ്ട് കലാഭവൻ മണിയുടെയും ഒക്കെ പാട്ടുകള് കേൾക്കാറുണ്ടായിരുന്നു അല്ലാതെ നാടോടി പാട്ടുകള് എനിക്കത്ര എനിക്ക് അറിയത്തില്ല അതിനെകുറിച്ച് വലിയ അറിവില്ല